കേരളത്തിൽ ഒട്ടനവധി ഉത്സവങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഓണം ഓണം കേരളത്തിലെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ് കാരണം എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട് ഒരാൾ മാത്രമല്ല എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ആൾക്കാരാണ് അതെപോലെത്തന്നെ ജാതി മത ഭേദമെന്യേ എല്ലാവരും അതാഘോഷിക്കുന്നുണ്ട് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും സംസ്കാരികമേഖലകളിലായാലും ക്ലബ്ബുകളിലായാലും വീടുകളിലായാലും ഓണം എല്ലാവരും പൊതുവായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണെങ്കിലും പത്ത് ദിവസം ലീവൊക്കെ കൊടുത്ത് ഗവണ്മെന്റ് സ്കൂളിലും കോളേജിലും പത്തു ദിവസം ലീവാണ് അപ്പോൾ എല്ലാവരും നല്ലരീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഉത്സവമാണ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ തിരുപിറവിയൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ഒരിതാണ് അത് പിന്നെ തിരുവനന്തപുരത്തെ ആറാട്ട് തെയ്യം ഉത്സവം പിന്നെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കേരളത്തിലെ എത്തിപ്പെടാൻ പറ്റു തൃശ്ശൂരിൽ എത്തിപ്പെടുന്നതു കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ആനപ്രേമികളും പൂരപ്രേമികളും വരുന്ന ഒരു ഉത്സവം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ എല്ലാവരും ഓണമാഘോഷിക്കുന്നത് എനിക്ക് ഓണമാഘോഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്സവമാണ് ഓണം പൂക്കള മത്സരമുണ്ട് തിരുവാതിരയുണ്ട് ഉറിയടിയുണ്ട് അതിനോടനുബന്ധിച്ച് കുറെ പരിപാടികളുണ്ട് ഓണത്തിന് ഓണമാണ് എനിക്ക് തോന്നിയ ഇമ്പോർട്ടന്റ്റ് ആയിട്ട് ആഘോഷിക്കുന്നത് പിന്നെയും ക്രിസ്മസ് പുല്കൂടുണ്ടാക്കാം പിന്നെ കരോൾ പാട്ട് കേക്ക് മുറി അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നത് എല്ലാം എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്